കോഴിക്കോട് ജില്ലയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട ചില പ്രാദേശിക വ്യവസായങ്ങളും ബിസിനസ്സുകളും ഒക്കെയുണ്ട് അതുപോലെ ഗ്രാസിം ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എണ്ണയും ആവശ്യവും പിന്നെ ടൈറ്റൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നിവയൊക്കെ ഇവയിൽ പ്രധാനപ്പെട്ട ബിസിനസ്സുകളും വ്യവസായങ്ങളുമാണ് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാളികേരം ഉത്പാദിപ്പിക്കുന്നതും കോഴിക്കോട് ജില്ലയിലാണ് അതുകൊണ്ടുതന്നെ ഒരുപാടാൾക്കാരെ ഈ കോഴിക്കോട് ജില്ലയിലേക്ക് തേ തേങ്ങക്കായും അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണയൊക്കെ വാങ്ങാൻ വേണ്ടി എത്തുന്നുണ്ട് ഇപ്പം ന ഇപ്പോൾ ഒരുപാട് ജില്ലകളിൽ നിന്നും പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തേങ്ങയൊക്കെ ഒരുപാട് ഒരു അവിടെ നിന്നാണ് കയറ്റി കൊണ്ട് അതുപോലെ ഇഞ്ചി ഇഞ്ചി കൃഷി ചെയ്യുന്ന അതുപോലെ ഇതുപോലെയുള്ള വെളിച്ചെണ്ണ കൂടുതലായിട്ടും ഉൽ ഉത്പാദിപ്പിക്കുന്നത് അവിടെത്തന്നെ നല്ല ക്ലിയർ പ്യുവർ ആയിട്ടുള്ള നാളികേരത്തിൻ്റെ വെളിച്ചെണ്ണ തന്നെ നമുക്കവിടുന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ടുതന്നെ അതിൻ്റെയൊക്കെ ബിസിനസ്സ് വളരെ മുൻതൂക്കം നൽകുന്നുണ്ട് ഇപ്പോൾ വ്യവസായങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാടിപ്പോൾ അവിടെത്തന്നെ ഇപ്പോൾ ഒരുപാട് എണ്ണ എണ്ണ എണ്ണയുടെ ഉത്പാദനം നടക്കുന്നുണ്ട് അതുപോലെ ടൈറ്റൻ ഇൻഡ ഇൻഡസ്ട്രീസ് ഉണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ അവിടെത്തന്നെ ബിസിനെസ്സ് നോക്കിയാൽത്തന്നെ ഒരുപാട് മെച്ചപ്പെട്ട ബിസിനസ്സും നല്ല സമ്പത് വ്യവസ്ഥക്ക് പ്രധാനപ്പെട്ട ബിസിനസ്സുകളാണ് ഇതൊക്കെ ഇതൊക്കെ കോഴിക്കോട് ജില്ലയിലുണ്ട്